ഹലോ യൂണിയൻ ബാങ്ക് അല്ലേ യൂണിയൻ ബാങ്ക് അല്ലേ മാം മാം എനിക്ക് മോൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഒരു ലോൺ വേണമായിരുന്നു മാം അപ്പോൾ ഓൾ ഇപ്പോൾ പി ജിക്ക് പഠിക്കുന്നുള്ളത് പി ജിക്ക് ആ അപ്പോൾ ഇല്ലേ എനിക്കൊരു എയ്റ്റി തൗസൻഡ് ലോൺ വേണം അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇപ്പം ഇൻ്ററസ്റ്റ് ആ ആ ആ ആ അത് ഇപ്പം അവർ മംഗലാപുരത്ത് അവളെ മംഗലാപുരത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് അഡ്മിഷന് ആ ഇത് ഇപ്പോൾ എല്ലാവരും

ആ ആ ആ അത് എല്ലാം റെഡി ആക്കാം മാം പിന്നെ ഇൻകം വേണോ ഇൻകം സർട്ടിഫിക്കറ്റ് വേണോ മാം ഓൾക്ക് ഇപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സായി ആ പാൻ കാർഡ് ആക്കാൻ കൊടുത്തിട്ടുണ്ട് മാം കിട്ടണമത്രെ ആ ഓക്കെ ഓക്കെ ആ സമയം ആവുമ്പോളേക്ക് റെഡി ആവും ആക്കാൻ കൊടുത്തിട്ട് കുറച്ച് ദിവസം ആയി അത് ശരി ആവും കിട്ടും കിട്ടും മതി രണ്ട് മണി കഴിഞ്ഞിട്ടല്ലേ പിന്നെ ഇല്ലേ മാം അതിനില്ലേ ആ ഇത് ഇത് ഈ സെവൻ പേർസെന്റേജിലോട്ടും എന്തെങ്കിലും കുറയാൻ സാധ്യത ഉണ്ടോ മാം

ആ അങ്ങനെ അല്ല പിന്നെ ഇല്ലേ ഇത് ആ ഇവർക്ക് ഇപ്പോൾ പി ജി കോഴ്സ് കഴിഞ്ഞിട്ട് ആയിട്ടില്ലേ ഇവർക്ക് ജോബ് എല്ലാം ശരിയായ ശേഷം അല്ലേ നമുക്ക് ഇപ്പോൾ ലോൺ ഇതാക്കാൻ പറ്റൂ അങ്ങനെ അല്ലേ അത്

അതിൽ നിന്ന് കത്ത് അയച്ചിനി ഓ അതെ അങ്ങനെയും ഉണ്ടോ അല്ല അത് ഇപ്പോൾ അത് ഇപ്പോൾ കഴിയുമെന്ന് അടയ്ക്കണമെങ്കിൽ നമുക്ക് ഇപ്പോൾ എത്ര സെവൻ പേർസെൻറ്റിൽ തന്നെ നമ്മൾ ഈ അത് അതേ പെർസെൻറ്റിൽ തന്നെ ആയിരിക്കുമല്ലേ ഇൻറ്ററസ്റ്റ് അടയ്ക്കുക അടയ്ക്കേണ്ടി വരും

ഓക്കെ ഓക്കെ ആ ഓക്കെ താങ്ക് യൂ മാം താങ്ക് യൂ